നമ്മൾക്കെന്നു വച്ചു കഴിഞ്ഞാൽ ആരോഗ്യകരമായ ജീവിത ശൈലിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറേ ഗെയിമുകൾ കളിക്കാം ക്രിക്കറ്റ് കളിക്കാം ഫുട്ബോള് കളിക്കാം അതേപോലെ ഹോളിബോള് ഷട്ടിൽ ബാറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കളിച്ചാലും ആരോഗ്യം ഉണ്ടാകുന്നതായിരിക്കും പിന്നെ അതുപോലെ രാവിലെ എണീച്ചോടുക പിന്നെ അതുപോലെ എക്സർസൈസ് ചെയ്യുക വാമപ്പ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ആയാലും എന്ത് ചെയ്തും നമുക്ക് ആരോഗ്യം ഉണ്ടാവും പിന്നെ അതേപോലെ നമുക്ക് പരമാവധി ലഹരി പദാര്ത്ഥങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക അപ്പം ആരോഗ്യം കൂടുകയേ ഉള്ളു ആരോഗ്യം കുറയില്ല ലഹരി യൂസ് ചെയ്തു ക്യാൻസറ് അങ്ങനത്തെ കാര്യങ്ങൾ രോഗങ്ങളൊക്കെ വന്നിട്ട് ആരോഗ്യം പോകുന്നതായിരിക്കും നമുക്ക് കുറേ കൊല്ലം ജീവിക്കാൻ വേണ്ടി വാമപ്പും ഇങ്ങത്തെ കാര്യങ്ങളും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് വാമപ്പും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക ആണെങ്കിൽ ആരോഗ്യം കിട്ടുന്നതായിരിക്കും അതേപോലെ നമ്മൾക്ക് ഈ വൈകുന്നേരങ്ങളിൽ വർക്ക് ചെയ്തു കഴിഞ്ഞിട്ട് ജിമ്മിന് പോയാലും എക്സർസൈസ് പോയാലും ഗെയിമ് കളിക്കാൻ പോയാലും ഫുട്ബോള് കളിക്കാൻ പോയാലും നമുക്ക് പണ്ടത്തെ ആൾക്കാരെ പോലെ ആരോഗ്യം കിട്ടും പിന്നെ അതേപോലെ നമുക്ക് നല്ല ഇതായിരിക്കും എനർജിക്ക് ആ യിരിക്കും പിന്നെ അതേപോലെ നമ്മൾക്ക് നമുക്ക് വലിയ തളർച്ച അങ്ങനെ കുറേ നടക്കുമ്പം മേലും കൈയും വേദന അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഡെയിലി ഈ വർക്കൗട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ